ഹലോ ഹലോ രാജി മിസ്സല്ലേ ഞാൻ പത്താം ക്ലാസ്സ് ഏയിൽ പടിക്കുന്ന രോഹിണീടെ അമ്മയാണ് മാം ഞാനൊരൂ ലീവിൻ്റെ കാര്യം പറയാനായിട്ട് വിളിച്ചതായിരുന്നു അതായിതെ ഞങ്ങൾക്കിപ്പോൾ അടുത്താ ഒരു ആഴ്ച്ചയായിട്ട് നമക്കൊരു ഫങ്ഷൻ വരുന്നുണ്ട് രോഹിണീടെ ചേച്ചീടെ കല്യാണമാണ് അപ്പം അത്കൊണ്ട് ഒരാഴ്ച്ചത്തെ ഒരു ലീവ് കിട്ടാൻ വേണ്ടീട്ട് അപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ആദ്യമേ തന്നെ പറയണം പത്താം ക്ലാസ്സാണല്ലൊ അപ്പോൾ നേരത്തെ തന്നെ പറയണോന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പറയാൻ വേണ്ടീട്ടായിരുന്നു വിളിച്ചത് നമുക്ക് അടുത്ത ആഴ്ച്ച ഇരുപത്തെട്ടാം തി ആയിട്ടാണ് വരുന്നത് കല്യാണം വരുന്നത് പക്ഷേ നമ്മളത് ഇവിടെ വെച്ചിട്ടല്ല കല്യാണം നടത്തുന്നെ നമുക്ക് ആറ്റുകാൽ പോയിട്ടാണ് കല്യാണം നടത്തുന്നതെ അപ്പം അതൊരു വഴിപാടായിരുന്നു അപ്പം എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കും അപ്പം അത്കൊണ്ടാണ് നമുക്ക് അപ്പം അവിടെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അപ്പം ചെക്കൻ്റെ വീടും വരുന്നത് അവിടെ തന്നെയാണ് അപ്പം അത്കൊണ്ടാ അതെ പക്ഷേ ഇതിപ്പം അത്യാവശ്യമായത് കൊണ്ടാണ് നമുക്കിപ്പം എല്ലാ ആൾക്കാരും ഉണ്ട് ഇപ്പപ്പിന്നെ മുത്തശ്ശിയും വായ്യാതായിട്ടിരിക്കുവാണ് അപ്പം പെട്ടന്നാണ് തീരുമാനിച്ചത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്ത്കൂടി വന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആൾടേം കൂടെ ഒരാഗ്രഹമാണ് എന്താ പറയാ മോളുടെ കല്യാണം നടന്ന് കാണണംന്നുള്ളത് അപ്പമത് കൊണ്ട്തന്നെ നമുക്കിത് കിട്ടുകാണെന്നുണ്ടെങ്കിൽ ഉപകാരമായിരുന്നു അത് മാക്സിമം ചേർത്ത് തരാൻ പറ്റുന്നയാണെൽ ചോദിച്ചിട്ട് അത് അതെ പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെ അധികവൊരു ലീവ് വല്ലപ്പോഴും വല്ല പനീം വന്നിട്ട് ലീവെടുത്തിട്ടുണ്ടെങ്കിലെ ഉള്ളു ബാക്കിയെല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തതിട്ടുണ്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ട്യൂഷന് പോയിട്ടാണെന്നുണ്ടെങ്കിലും പഠിക്കുന്നുണ്ട് നമുക്കിപ്പം ഇതൊരു കിട്ടുക അതെ ഇതിനിപ്പം നമ്മളിനിയിപ്പം എന്തായാലും ഇതാവർത്തിക്കുന്നുണ്ടാവില്ല ഈയൊരു ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും എടുക്കാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചോണ്ട് ഇത് ഇനിയിപ്പോൾ ക്ലാസ് കഴിയുന്നത് വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവെടുക്കാതെ തന്നെ അവളെ വിട്ടോണ്ട് സ്കൂൾലോട്ട് ഇതിപ്പം സാർനെ വന്നിട്ട് കണ്ടിട്ട് സംസാരിക്കയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ശരിയാക്കാനായിട്ട് പറ്റു

ആ അതെയോ അതെയോ നമ്മളെന്നാൽ എത്രയും പെട്ടന്നന്നെ വിടാനായിട്ട് നോക്കാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെം ഞങ്ങളെടുക്കില്ല അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് നാല് ദിവസാണെന്നുണ്ടേലും കിട്ടി കഴിഞ്ഞാൽ ഒരു ഉപകാരമായിരുന്നു അത്രേം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും തീരെ എടുക്കില്ല ആ ഒരൊറപ്പ് തരാം

ശരി മാം ആ ഞങ്ങളെന്തായാലും നോക്കാം ഇതെന്തായാലും പെട്ടന്നെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടന്നെ എന്തായാലും സ്കൂളിക്ക് വിട്ട് തുടങ്ങാം ഇത് കഴിഞ്ഞാൽ എന്തായാലും എങ്ങനെയാന്നുണ്ടെങ്കിൽ ലീവെടുക്കാതെ തന്നെ നോക്കാം ആ ഓക്കെ മാം

ആ ശരി ശരി പാ